ഞാൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഈ റസ്റ്റോറന്റിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഡെലിവറി ബോയ് എനിക്ക് അതെല്ലാം എത്തിച്ചു തന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത കുറേ സാധനങ്ങൾ കാണുന്നില്ല അതായത് ഞാന് ചപ്പാത്തി വിത്ത് പനീർ ബട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നേ പൊറോട്ട ചിക്കൻ സിക്സ്ററി ഫൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഫിഷ് ഫ്രൈയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതെല്ലാം ഇതൊന്നും കൊണ്ടു വന്നില്ല പകരം എനിക്ക് എത്തിച്ച് തന്നത് കുറച്ച് റൈസും ചപ്പാത്തിയും പൊറോട്ടയും മാത്രമാണ് കറികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണ് പറ്റിയത് എൻ്റെ ഓർഡർ എനിക്ക് ഞാൻ ചോദിച്ച സാധനങ്ങൾ തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എന്നോട് പറയേണ്ടതായിരുന്നു ഇപ്പോൾ ഡിന്നർ കഴിക്കേണ്ട സമയത്താണ് പൊതി അഴിച്ചത് എല്ലാം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് പൊതി അഴിച്ചതെങ്കിലും ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് എത്തിച്ചു തരാൻ പറ്റുമോ